ഇന്നത്തെക്കാലത്ത് കോഴിയെ വളർത്തി താറാവിനെ വളത്തിയോ മാത്രം ജീവിക്കാന് പറ്റുന്നൊരു കാര്യമല്ല മറ്റെന്തേലും കൂടെയൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഇച്ചിരി കൃഷിയും കാര്യവും അതൊന്നും കൊണ്ടും നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടു കോഴിയെ വളത്തുന്നതുകൊണ്ട് മാത്രമൊന്നും ജീവിയ്ക്കാൻ പറ്റത്തില്ല കോഴിയുണ്ട് താറാവുണ്ട് അതുകൂടാതെ അത്യാവശ്യം തൈക്കുന്നുണ്ട് പിന്നെ ടാക്സിയുണ്ട് പോവണം അങ്ങനെ പല കാര്യങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി റിസ്ക്കാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയൊന്നും പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ബിസ്നസ്സ് ചെയ്യണം ചെയ്യുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം ഒന്നാമത്തെ കാര്യം സാമ്പത്തികമാണ് സാമ്പത്തികമാന്ദ്യം കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് വരുമാനവുമില്ല വരവ് വരുമാനത്തേക്കാൾക്കൂടുതൽ ചിലവുകളുമാണ് അതുകാരണം ജീവിതം വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത് അക്കൂട്ടത്തില് ഒരു കൈത്താങ്ങെന്നുള്ള നിലയിലാണ് ഈ കോഴിയും താറാവിനേയൊക്കെ വളർത്തുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പിന്നെ ചെയ്യാന് പറ്റുന്നത് നമ്മളെക്കൊണ്ട് നമ്മുടെ ആരോഗ്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പം വീട് പച്ചക്കറിയായിട്ടും എല്ലാം സ്വന്തം വീട്ടീല്നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറവാണല്ലൊ പുറത്ത് കാശ് മുടക്കാതെ നമ്മുടെ വീട്ടിൽത്തന്നെ കോഴിയും താറാവിനേയുമൊക്കെ വളർത്തുമ്പോൾ അതിന്റെ കാട്ടങ്ങൾ വളങ്ങളായിട്ടുപയോഗിച്ചും മീന് വളർത്തൽ മീന് വളർത്തുന്നുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് പച്ചക്കറി അത്യാവശ്യം കപ്പയും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ പറമ്പുള്ള പറമ്പിൽ വെള്ളം കേറുന്ന പറമ്പാണേലുമുള്ള പറമ്പിലൊക്കെ അതൊക്കെ ചെയ്തും എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് പോവുന്നുണ്ട് നമുക്ക് പക്ഷേ ഇതും കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല സ്ഥിരമൊരു വരുമാനത്തിനുള്ള മാര്ഗം അതായതൊരു ജോലി ആവശ്യമാണ് എപ്പോഴും ഒരു സ്ഥിരവരുമാനം ആ സ്ഥിരവരുമാനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്കൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ മനുഷ്യനിന്നത്തെക്കാലത്ത് ആരോഗ്യവുമില്ല എന്തെങ്കിലുമൊരു തൊഴിലല്ലെ നമ്മളേക്കൊണ്ട് ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാലത് ചെയ്യാനുള്ള ആരോഗ്യവും കൂടെ നമ്മൾക്ക് വേണമല്ലോ അത്കൊണ്ട് അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് കോഴിയും താറാവും കൊണ്ടൊന്നും തന്നെ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ്സ് കാര്യങ്ങളും കൂടുതൽ ചെയ്താലേ ഇന്നത്തെക്കാലത്ത് ജീവിക്കാൻ പറ്റത്തുളളൂ